മലയാള ഭാഷയ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ് കുറേ ലിപികളും കുറേ വ്യഞ്ജനാക്ഷരങ്ങളും സ്വരാക്ഷരങ്ങളൊക്കെ അടങ്ങിയ ഒന്നാണ് മലയാള ഭാഷയെന്ന് പറയണത് അത് എല്ലാവർക്കും പെട്ടെന്ന് പഠിക്കാൻ പറ്റില്ല അതൊക്കെ പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഭാഷയാണ് അപ്പോൾ നമുക്കതിന്റേതായ ഒരു പ്രൗഡ് മൊമെന്റാണ് നമ്മളത്രയും നല്ല ഭാഷ പഠിച്ച് എല്ലാർക്കും ടഫ്ഫുള്ള ഭാഷയാണ് നമ്മുടെ മാതൃഭാഷ അപ്പോൾ നമ്മൾക്ക് ആ ഭാഷ അറിയും നമുക്കത് നമ്മുടെ മാതൃഭാഷയാണ് നമ്മൾ പഠിച്ച ഭാഷയാണ് നമുക്ക് വേറെ ഭാഷകളൊക്കെ പഠിക്കാൻ വളരെ സിമ്പിളാണ് ഈ മാതൃഭാഷ പഠിച്ചതുകൊണ്ട് തന്നെ വേറെ ഭാഷകളൊക്കെ പഠിക്കാൻ വളരെ സിമ്പിളാണ് മറ്റുള്ള ഭാഷകളെ അപേക്ഷിച്ചും നമ്മുടെ മാതൃഭാഷ നമുക്ക് പെട്ടെന്ന് കൈകാര്യം ചെയ്യാൻ എളുപ്പാണ് അതിപ്പോൾ എല്ലാവരുടെ മാതൃഭാഷയും കൈകാര്യം ചെയ്യാൻ എളുപ്പാണ് അവരവർക്ക് പക്ഷെ നമുക്ക് നമ്മുടെ മാതൃഭാഷയിൽ വളരെ എളുപ്പം നമുക്ക് എല്ലാ നാവ് വഴങ്ങുക പറയും അതുപോലെ എല്ലാ സംസാരിക്കാൻ പെട്ടെന്ന് വഴങ്ങും അതിനനുസരിച്ച് നമുക്ക് ഇംഗ്ലീഷും സംസാരിക്കാൻ പ്രൊനൗൺസ് ചെയ്യാൻ ഒക്കെ നന്നായിട്ട് വഴങ്ങും കാരണം നമ്മൾ അത്രയും നന്നായിട്ട് മലയാളം സംസാരിക്കുന്നവരാണെങ്കിൽ നമുക്കത് വഴങ്ങും അതേപോലെ ഇംഗ്ലീഷ് സംസാരിക്കണവർക്ക് വന്നിട്ട് മലയാളം വഴങ്ങുക പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് അവർ കറക്ട് നാവ് കറക്ട് എന്നാൽ അവരുദ്ദേശിക്കണവിടെ അവർ മനസ്സിൽ വിചാരിക്കണത് പറയാൻ പറ്റില്ല അതാണ് നമ്മുടെ മലയാള ഭാഷയുടെ ഏറ്റവും വലിയ സവിശേഷത